തുന്നലും നെയ്ത്തും എൻ്റെ അമ്മയാണ് എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നത് അമ്മയിൽ നിന്നാണ് എനിക്ക് ഇത് രണ്ടും പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ നമ്മൾ തന്നെ തുന്നിയെടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തി അത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതാണ് അതുപോലെ നമ്മുടെ മനസ്സിൽ കാണുന്ന ഓരോ വസ്ത്രങ്ങളും നമുക്ക് തുന്നിയെടുക്കാനും വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് തുന്നിയെടുക്കാൻ ഇപ്പം ഓരോ മോഡലുകൾ ഇന്നത്തെ കാലത്ത് മാറി വന്ന് കൊണ്ടിരിക്കുകയാണ് ചുരിദാറുകളിലാണെങ്കിലും സാരിയിലാണെങ്കിലും ബ്ലൗസിലാണെങ്കിലും മിടികളും ടോപ്പുകൾ ജീൻസുകൾ അങ്ങനെ പലതരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് വസ്ത്രങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു അവയുടെ നിറങ്ങളും അതുപോലെ തന്നെ അവയുടെ മോഡലുകളും മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മൾ ഒരു തുന്നൽ പഠിച്ചിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഒരു നെയ്ത്ത് പഠിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് ഉണ്ടെങ്കിൽ നമ്മളുടെ വസ്ത്രങ്ങൾ തുന്നാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നില്ല നമ്മളുടെ മനസ്സിൽ കാണുന്ന അതേ ഡിസൈനിലും മോഡൽലും നമുക്ക് വസ്ത്രങ്ങൾ നെയ്ത് എടുക്കാനോ അല്ലെങ്കിൽ തുന്നി എടുക്കാനോ വേണ്ടി സാധിക്കും നമ്മുടെ ഡിസൈൻ മനസ്സിലുണ്ടാവുകയും നമ്മൾ അത് മറ്റൊരാളെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് എങ്കിൽ നമ്മൾ വിചാരിച്ച അതേ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് അതേ ഒരു സംതൃപ്തിയോട് കൂടിയിട്ട് നമുക്ക് ആ ഡ്രസ് ഉപയോഗിക്കാൻ സാധിച്ച് കൊള്ളണം എന്നില്ല എന്നാൽ നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളൊരു വ്യക്തി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ വസ്ത്രത്തിലൂടെ നമുക്ക് പുറത്തേക്ക് കാണിക്കാനും ആ വസ്ത്രത്തിൻ്റെ ഭംഗിയും മോടലും മറ്റുള്ളവരെ ആകർഷിക്കാനും വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടാകും ഞാൻ കൈത്തൊഴിൽ പഠിക്കുന്ന സമയത്ത് മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ആദ്യ കാലങ്ങളിൽ എനിക്ക് അത് തോന്നിയിട്ടുണ്ടായിരുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇത് പഠിക്കണ്ട ഇത് ഇവിടെ വെച്ച് ഉപേക്ഷിക്കാം എന്നുള്ളൊരു നിലയിൽ വരെ എത്തിയെങ്കിൽ പോലും അമ്മയുടെ നിർബന്ധം കാരണം അത് തുടർന്ന് പഠിക്കുകയും ആദ്യമായിട്ട് ഞാൻ തുന്നിയെടുത്ത ഒരു വസ്ത്രം മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ച സമയത്ത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്തതാണ് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് മാറിയിട്ടുള്ളത് പിന്നീട് പല ഡ്രസ്സുകളും ഞാൻ സ്വന്തമായി എനിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ ഞാൻ സ്വന്തമായി തുന്നിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും മറ്റുള്ള ആളുകളിലെ ആളുകൾക്ക് അവർ പറയുന്ന ഡിസൈനിലും മോഡൽലും കളറിലും ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഉദ്ദേശിച്ച അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് എടുത്തു എന്നുള്ള അവരുടെ മുഖത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ് മറ്റൊരു മറക്കാനാകാത്ത സംഭവം എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ പഠിച്ചിട്ട് നമ്മൾ അത് ചെയ്യുകയാണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു ജീവിതമാർഗ്ഗവുമായിരിക്കും നമ്മളുടെ ഡ്രസ്സുകൾ നമ്മൾക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾക്കാരെ ആശ്രയിക്കേണ്ടതായിട്ടും വരുന്നില്ല ഇഷ്ടമുള്ള മോഡലുകൾ സമയത്തിന് അനുസരിച്ച് നമുക്ക് നെയ്ത് എടുക്കാനും അതിലൂടെ തന്നെ പുതിയ പുതിയ മോഡലുകളും ഡിസൈനുകളും നമുക്ക് നെയ്ത് എടുക്കാനും വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാകും എല്ലാവരും അത് പഠിച്ചെടുക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ ആദ്യം തുടക്കത്തിൽ അത് പഠിച്ചെടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിടാർഥയം നിരന്തരമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പഠിച്ചെടുക്കാവുന്നതാണ്